ഇപ്പോള് ഡോക്യൂമെൻറ്റേഷൻ്റെ ആവശ്യത്തിനായിട്ട് ആധാർ കാർഡിൻ്റെ സ്കാൻ ചെയ്ത പകർപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോള് എന്തുകൊണ്ടാണ് ഈ ആധാർ കാർഡിൻ്റെ പകർപ്പ് എന്തിനാണ് ഇപ്പോള് നമുക്കു കൊടുക്കാൻ പറഞ്ഞേക്കുന്നത് അതിൻ്റെ ആവശ്യകത എന്താണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് പറയാമോ പ്രത്യകിച്ച് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അന്വേഷിക്കാനാണല്ലോ ആണല്ലോ അന്വേഷിക്കേണ്ടപ്പോള് നിങ്ങള് അതിൻ്റെ എന്താണത് അതിൻ്റെ ആവശ്യകത എന്തിനുവേണ്ടിയാണ് അത് സമർപ്പിക്കേണ്ടിയത് ഒന്ന് പറയാമോ അതുപോലെ അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നേന്ന കാര്യത്തില് എനിക്ക് ഡൗട്ടുണ്ട് അപ്പോള് അതില്ക്കൂടെ അതെങ്ങനെ ഡൗൺലോഡെയ്യണ്ടേന്നെ കാര്യങ്ങളൊന്നു പറയണേ